കേരളത്തിലെ കായികമേഖല കായികത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം വികസനത്തിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പിന്തുണയാണ് നല്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മത്സരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പ്രതിഭകളുടെ കായിക താരങ്ങളുടെ അവരുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ല രീതിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്നതാണൊക്കെ നടത്തിക്കൊണ്ട് വരുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽത്തന്നെ കായികമായിട്ടുള്ള കാര്യത്തിൽ ഒന്നാമതായിട്ട് മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളം ഇപ്പോൾ കായികവിനോദ വികസനത്തിന് പ്രോത്സാഹനത്തിനും വേണ്ടിയിട്ട് നല്ല രീതിലുള്ള പിന്തുണയാണ് നൽകുന്നത്